അയൽക്കൂട്ടം പരിപാടി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ജനങ്ങൾക്ക് ഒരു മാതൃകയാണ് കുടുംബശ്രീ പോലുള്ള അംഗങ്ങളുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഇപ്പോൾ ഒരു തൊഴിലുറപ്പ് ഉണ്ടായിരിക്കുന്നതാണ് കുടുംബശ്രീ വക ഇരുപത് രൂപയുടെ ചോറ് കുടുംബശ്രീ വക ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു സംരംഭമാണ് പിന്നെ വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം അതെന്നു വെച്ചാൽ എല്ലാ ഗവർമെൻറ്റ് സ്കൂളുകളിലും ഇപ്പോൾ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഓരോ നല്ല നല്ല മാഷുമാരും നല്ല പഠിപ്പും നല്ല ഇതും ഉള്ളതുകൊണ്ട് ഗവർമെൻറ്റ് സ്കൂൾ എല്ലാവരും ഇപ്പോൾ വിദ്യാഭ്യാസം അനുകരിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും തൊഴിലുറപ്പ് ജോലി ഉള്ളതുകൊണ്ട് ഇപ്പോൾ തൊഴിലുറപ്പ് ജോലിയുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ കഴിഞ്ഞുകൂടി പോവുന്നു അതുപോലെതന്നെ വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശക്തി എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഇതായി പോകുന്നു പിന്നെ സർക്കാർ ആസ്പത്രിയിൽ ഇപ്പോൾ തിരക്കേറിയതുകൊണ്ട് ആരോഗ്യകേന്ദ്രത്തിൽ വേഗം പോയിട്ട് മരുന്നുകൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാം സർക്കാരിൻ്റെ സംരക്ഷണം കൊണ്ട് എല്ലാം നടന്നു പോകുന്നു സംരക്ഷണം കൊണ്ട് എല്ലാം നടന്നു പോകുന്നു അതുകൊണ്ട് അമ്മയും കുഞ്ഞും എന്നുള്ള പദ്ധതി ഉൾക്കൊണ്ട് എല്ലാം ഇതാണ് പ്രസവിച്ചു വരുമ്പോൾ അയ്യായിരം രൂപ സർക്കാർ തരുന്നതാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്നതാണ് സൗകര്യം ഒരുക്കുന്ന എന്തെങ്കിലും സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് തൊഴിലുറപ്പും സർക്കാർ ആശുപത്രിയിലെ തിരക്കുകൾ കാരണം സൗജന്യ ചികിത്സ കിട്ടാറുണ്ട് എല്ലാ മരുന്നുകളും പൈസയില്ലാണ്ട് ഫ്രീ ആയിട്ടും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് എല്ലാം തൊഴിലുറപ്പുകൾ കുടുംബശ്രീ വകയുള്ള എല്ലാവരും തൊഴിലുറപ്പുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു